കേരളത്തിലെ ജനങ്ങൾക്കു പ്രധാന പ്രധാന ഐറ്റം സർക്കാർ ചെയ്യുന്ന നല്ല പദ്ധതികളെന്നു പറയുമ്പോൾ ക്ഷേമത്തിനും തൊഴിലിനായിട്ടൊക്കെ ഒരുപാട് പദ്ധതികളുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നതായിട്ടു ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാറുണ്ട് ഇപ്പം എൻ്റെ അമ്മൂമ്മയ്ക്കാണെങ്കിലും വിധവാ പെൻഷൻ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പെൻഷൻ കാര്യങ്ങൾ വളരെ കൃത്യമാണ് പിന്നെ ആരോഗ്യ സംരക്ഷണമായി ബന്ധപ്പെട്ട് കൃത്യമായ വാക്സിനുകൾ കൃത്യമായ അങ്ങനെയുള്ള പരിപാടികളെല്ലാം കോവിൻ പോലെയുള്ള വാക്സിനും അതിൻ്റെ ആയി ബന്ധപ്പെട്ട അതും പിന്നെ ഈ ഈ മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങൾ രോഗങ്ങൾ ആ സമയത്തുണ്ടാകുന്ന രോഗങ്ങളായി ബന്ധപ്പെട്ട് കേരളത്തിൽ ജനങ്ങൾക്കൊക്കെ സർക്കാരിൻറെ പദ്ധതികളെല്ലാം പ്രയോജനപ്പെടാറുണ്ട് പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പറഞ്ഞതു പോലെ സ്കോളർഷിപ്പ് കുട്ടികൾക്കു കൊടുക്കുന്ന സ്കോളർഷിപ്പ് പിന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ കൊടുക്കുന്ന വളരെ തുച്ഛമായ ഫീസിൽ നല്ല വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് അത് ഇല് ഞാൻ സന്തുഷ്ടനാണ് പിന്നെ തൊഴിൽ മേഖലയിൽ എത്രമാത്രം ഇതാണെന്ന് എനിക്ക് കൂടുതലറിയില്ല അതിനെ പറ്റി എന്തായാലും ക്ഷേമം ആൾക്കാരുടെ ക്ഷേമത്തിനായി നല്ല ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഈ സുകന്യ സമൃദ്ധി യോജന പോലെയുള്ള പദ്ധതികളും പിന്നെ ഈ കുട്ടികൾക്ക് ഇത്ര വയസ്സു മുതൽ ഇത്ര വയസ്സു വരെയുള്ള കുട്ടികൾക്ക് ഈ മാതാപിതാക്കളീ ബേങ്കിലീ പൈസ ഇട്ടിട്ട് ആ പൈസ അവരുടെ ഒരു കല്ല്യാണ പ്രായം ആകുമ്പോൾ അവർക്കത് ഏടുക്കാൻ പറ്റുന്ന എത്ര ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ അങ്ങനെന്തോ വയസ്സാകുമ്പോൾ അവർ പിൻവലിക്കുമ്പോൾ അതൊരു നല്ലൊരു തുകയായി മാറും അതവർക്കു പഠനത്തിനുപയോഗിക്കാം കല്ല്യാണത്തിനുപയോഗിക്കാം അങ്ങനെ ഒരു നല്ലൊരു പദ്ധതിയൊക്കെ കാ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ആരോഗ്യ സംരക്ഷണത്തിന് കാതോർത്തെന്നുള്ള രീതിയിൽ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടും ഒരുപാട് പദ്ധതികളും സർക്കാരിൻ്റെ പരിപാടികളൊക്കെ കൊണ്ടുവരുന്നതായി കണ്ടിട്ടുണ്ട് കോവിഡിൻ്റെ സമയത്തൊക്കെ ഒരുപാട് പ്രത്യേകിച്ചും ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്